ഹലോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനൊരു മുസ്ലീമാണ് മുസ്ലീമിൽ പല അന്ധവിശ്വാസങ്ങളും നടക്കുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിലും എന്താണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് എന്തിനാണ് അത്രയും അന്ധവിശ്വാസങ്ങൾ നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ആ ദൈവം എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ട് ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് കുറേ കാര്യങ്ങൾ നടക്കുക നമ്മുടെ കേരളത്തിൽത്തന്നെ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പ്പോലും ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽപ്പോലും ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതായത് ദൈവം നമ്മളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്തുചെയ്തിട്ടുണ്ട് ഈ ആളുകൾ ചെയ്തുകൂട്ടുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ നാടിനെത്തന്നെ നമ്മളെന്തുചെയ്യണതാണ് നശിപ്പിക്കണതാണ് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ നാടിനെയും നമ്മളെ നമ്മളിൽ വരുന്ന തലമുറകളേയും നമ്മളോ നശിച്ചു പിന്നീട് വരുന്ന തലമുറകളെയും അവരെന്തു ചെയ്യുകയാണ് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മളെന്തുചെയ്യാൻ പാടില്ല അതിലൊന്നും വിശ്വസിക്കാൻ പാടില്ല വിശ്വാസം ഒരു വ്യക്തിക്ക് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ എന്തിനാണെങ്കിലും ആ ഒരു ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസത്തിൽ നമ്മളെന്തുചെയ്യുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം ഒരു വ്യക്തി മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ഹിന്ദു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ക്രിസ്ത്യൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ മൂന്ന് ആ ഏതു മതത്തിലാണോ അല്ലെങ്കിൽ ഏതു ജാതിയിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൽ മാത്രം എന്തു ചെയ്യുക മുന്നോട്ടുപോയി ജീവിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് അതിൽ ദൈവം പറയാത്ത കുറേ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ വന്ന് പറയുമ്പം ആ അതങ്ങനെയാണ് അല്ലെങ്കിൽ അതിങ്ങനെയാണ് അത് വിശ്വസിക്കാം അത് ചെയ്യാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ നാടും നമ്മുടെ വരുന്ന തലമുറകളും മാത്രമാണ് എന്ത് ചെയ്യുന്നത് നശിച്ചുപോകുന്നത് അപ്പം നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം കുറഞ്ഞുകുറഞ്ഞു വരികയാണ് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണം നമുക്ക് ദൈവത്തോടുള്ളൊരു വിശ്വാസം കുറഞ്ഞു വരികയാണ് ചെയ്യുക കുറഞ്ഞുവരികയാണ് ചെയ്യുന്നത് അതുപോലെ ദൈവം നമ്മളോട് എന്താണോ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചെയ്യാണ്ട് ഈ മറ്റുള്ളവർ പറയുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിശ്വസിച്ച് അതിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം കൂടുതൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെന്ത് ചെയ്യുക ദൈവം ഏതും മതമായിക്കോട്ടെ ജാതിയായിക്കോട്ടെ എന്താണോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ മാർഗ്ഗത്തിൽ നമ്മളെന്ത് ചെയ്യുക ജീവിച്ച് മുന്നോട്ടുപോവുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ വരുന്ന തലമുറകളൊക്കെ നന്നായി നല്ല രീതിയിൽ തന്നെ ജീവിക്കും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണമാണ് നമ്മുടെ നാട് നശിക്കുന്നത് തലമുറകളും നശിച്ച് പോകുന്നത്